എൻ്റെ വീട്ടിൽ പശു ഉണ്ട് ആട് ഉണ്ട് പട്ടി ഉണ്ട് ഇതിനെയൊക്കെ പരിപാലിക്കായെന്ന്ച്ചാ നല്ലൊരു പണി തന്നെയാണ് പശുവിനാണെങ്കിൽ പുല്ല് വേണം വെള്ളം പിന്നെ അതിനെ കുളിപ്പിക്കാ ചാണകം വലിച്ചു കളയുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പശുവിൻ്റേതിൽ പിന്നെ പാൽ കറക്കണം പാൽ കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ആടും അതേപോലെ തന്നെ ആടിൻ്റെയും വേണ്ടിയിട്ടുള്ള ഫുഡിന് വേണ്ടി അതായത് പ്ലാവിൻ്റെ ചപ്പ് ആണ് അതിന് വേണ്ടത് ഇതിനും അതേപോലെ കറക്കണം കുളിപ്പിക്കണം ആടിനെ അത് പശുവിനെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കേണ്ട എന്നാലും ഇടയ്ക്ക് കുളിപ്പിക്കണം പിന്നെ പട്ടി പട്ടിനെ ഇതേപോലെ കുളിപ്പിക്കണം ഫുഡ് കൊടുക്കണം അതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് പശുവിനാണ് പശുവിന് ഇറക്കി പുറത്ത് കെട്ടണം എന്നും എന്നും തന്നെ പുറത്തിറക്കി ഒന്ന് മണ്ണിൽ കൂടെ നടത്തിക്കണം ഒന്ന് എന്നും കുളിപ്പിക്കണം പിന്നെ പശുവിനെ രണ്ട് നേരം കറക്കണം പിന്നെ ചാണകം ഇടയ്ക്ക് വടിച്ചു കളയണം പാൽ കറന്നു സൊസൈറ്റി കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറേ വർക്കുകളാണ് പശുവിൻ്റേതിൽ ഉള്ളത് പിന്നെ പട്ടിയും ആടും വലിയ ഒരു പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് അതിന് ചപ്പ് വെട്ടിയിട്ട് കൊടുത്താൽ ഓക്കെ ആണ് പട്ടിക്ക് നമുക്ക് വരുന്നത് ഒരു ചോറ് കൊടുക്കുക അതൊക്കെ തന്നെയേ ഉള്ളൂ